ഹലോ നമുക്കിപ്പോൾ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു വൺ ക്രോറിൻ്റെ അടുത്ത് വരുന്ന വർക്ക് ആണത് ആ അപ്പോൾ നമുക്ക് ലേബേഴ്സ് ഒക്കെ അവൈലബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഏ

ആ നമുക്ക് പെർ ഡേ ഒരു ഇപ്പോൾ ഈ വർക്ക് തുടങ്ങുമ്പോൾ നമുക്കൊരു എട്ട് പേരൊക്കെ മതിയാവും ആ ഇത് ഇപ്പോൾ ആയിരിക്കുമല്ലോ അല്ലേ അ ഓക്കെ ആതിനകത്ത് നമുക്കൊരു നാല് അഞ്ച് പേരൊക്കെയായിട്ട് നമുക്ക് കയ്യാളായിട്ട് മതിയാവും ബാക്കി ആൾക്കാരെ മെയിൻ മേസൻമാരായിട്ട് കുറച്ച് ആൾക്കാരെ മതിയാവും ഒരു മൂന്ന് പേരൊക്കെ വീടാണ് വർക്ക് വന്നിരിക്കുന്നത് നമുക്ക് കോഴിക്കോട് ബീച്ചിൻ്റെ കുറച്ച് അപ്പുറമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്ക് നമുക്ക് വർക്ക് അവർ പറഞ്ഞിരിക്കുന്നതൊരു ഫോർ മന്ത് ഫൈവ് മന്തിനുള്ളിൽ തീർത്ത് കൊടുക്കണമെന്നാണ് പക്ഷേ അത്ര ടൈം എന്തായാലും നമുക്ക് മതിയാവില്ല അപ്പോൾ നമ്മൾ ഞാനൊരു എയ്റ്റ് മന്ത്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ആ ടൈം കൊണ്ട് നമുക്കത് തീർക്കണം ആ നമുക്ക് കരാറൊന്നുമില്ല നമുക്ക് തന്നിരിക്കുന്നത് ആണ് വർക്ക് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫുൾ തൊട്ട് നമ്മൾ വർക്ക് തന്നെയാണ് ഫുൾ ചെയ്തുകൊടുക്കേണ്ടത് പിന്നെ ആ പിന്നെ നിങ്ങളും കൂടെ വരുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം പോയിട്ട് ആ സൈറ്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കി നോക്കാം ആ ബീച്ചിൽ നിന്ന് കുറച്ചും കൂടെ അപ്പുറത്തേക്ക് പോയാൽ മതി ബീച്ചിൻ്റെ അവിടെ നിന്ന്

ആ നമുക്കൊന്നിച്ച് പോവാം ആ എപ്പോഴാണ് ഫ്രീ എന്ന് നോക്കാം എന്നിട്ട് നമുക്ക് പോവാം വിളിച്ചാൽ മതി വർക്ക് നിങ്ങൾ ലേബേഴ്സ് എപ്പോഴാണോ അവൈലബിൾ ആണെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം തുടങ്ങാം ആ ഓക്കെ അപ്പോൾ നമുക്കപ്പോഴത്തേക്കും തുടങ്ങാം എന്തായാലും നോക്കാം ഓക്കെ ആയിക്കോട്ടെ എന്നാൽ പോരൂ കേട്ടോ നമുക്ക് മീറ്റ് ചെയ്യാം